അപ്പോൾ ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്നവർക്കെന്ന് പറഞ്ഞാ സാധാരണയായിട്ട് ചില വീഴ്ചകളൊക്കെ സംഭാവിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൻ്റെ ഒരു ഇതെന്താണെന്നൊന്നും അവർക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ആദ്യമായിട്ട് ചേരുന്ന സമയത്ത് ഇത് അവർക്ക് എന്താ വരയ്ക്കുന്നേ എങ്ങനെയാണ് വരയ്ക്കുന്നേ എന്താണ് വരയ്ക്കുന്നേ എന്നൊര് ഐഡിയയും കാര്യങ്ങളൊന്നും ഇവർക്കുണ്ടാവില്ല ഇപ്പോൾ പല രീതിയിലും അവർക്ക് പേടിയും കാര്യവും ഇപ്പോൾ ഒരു ആള് വരയ്ക്കുമ്പോൾ കൈ വിറയ്ക്കുക അവരുടെ മുഖം വരയ്ക്കുമ്പോൾ നമുക്ക് പേടിയാവുക ഇതിപ്പോൾ എങ്ങനെ വരച്ചാൽ അവരെ നമ്മൾക്കത് സന്തോഷിപ്പിക്കാൻ പറ്റും അവർക്കത് കൺവിൻസാവുമോ എന്നൊക്കെ ഒരു ഭയവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും അതാദ്യം മെയ്നായിട്ട് നമ്മളൊഴിവാക്കണം നമ്മള് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും മൈൻഡ് നമ്മള് നല്ല രീതിയില് കൂളാക്കിയശേഷം നമ്മള് അവരുടെ മുഖത്ത് കണ്ണിലു നോക്കിത്തന്നെ നമ്മൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക നമ്മളത് നമ്മൾ ഉറപ്പായിട്ട് ഇത് വരച്ച് തന്നിരിക്കും നല്ല രീതിയില് അവർക്ക് വരച്ച് കൊടുത്തിരിക്കുന്ന വേണ്ടിയിട്ട് നമ്മള് അവരുടെ കണ്ണില് നോക്കി നമ്മള് സംസാരിക്കുക അങ്ങനത്ത കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു കലാകാരൻ ആയെന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് നല്ല രീതിയില് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് മെയ്നായിട്ട് ചെയ്യേണ്ടത്